ഞങ്ങളിവിടെ ഈ ഗ്രാമപ്രദേശത്താണ് വേമ്പനാട്ട് കായലിന്റെ തീരത്ത് താമസിക്കുമ്പോള് ജലദോഷമൊക്കെ എപ്പോഴും ഉള്ളതാണ് അതിന് നമ്മളെന്നുപറഞ്ഞാല് ഓടി ഈ ഗവൺമെൻറ്റ് ആശുപത്രിയിലോട്ടൊന്നും പോകാറില്ല ഈ തൊണ്ടവേദനയോ അല്ലെങ്കില് ചെറിയ ജലദോഷമോ തുമ്മലോ ഒക്കെ വന്നാല് അത് പഴയ കാലം മുതലെ ഈ ആവി പിടിക്കുക ചുക്കിട്ട് കാപ്പി തിളപ്പിച്ച് കുടിക്കുക പിന്നെ റസ്റ്റ് എടുക്കുക അതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ടുള്ളേ പിന്നെ ഈ നമ്മുടെ ഇതില്ലെ പനിക്കൂർക്ക ഇല അത് ഇട്ട് ആവിപിടിക്കുന്നത് നല്ലതാണ് അതുപോലെതന്നെ ഈ തുളസിയില തുളസിയില പനികൂർക്കയിട്ട് ആവിപിടിക്കും പിന്നെ ചുക്ക് ഇട്ട് നല്ല കട്ടൻകാപ്പി നല്ല കടുപ്പത്തിൽ കുടിക്കുക അതൊക്കെയാണ് സാധാരണ ഇവിടെ പണ്ടുകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന അതൊക്കെത്തന്നെയാണ് നമ്മുടെ മക്കള്ക്കും ഒക്കെ പറഞ്ഞുകൊടുക്കുന്നെ ഈ കായലമ്പലം ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ ഈ ജലദോഷത്തിന് സാധ്യത ഉള്ള സ്ഥല കാരണം ഒരു കാറ്റടിക്കുകയോ മഴ പെയ്തു കഴിഞ്ഞാല് അന്നേരെ ചുമയും ഇതുണ്ടാകും പിന്നെ തൊണ്ടവേദനയൊക്കെ വരുവാണെങ്കിൽ ഉപ്പിട്ട് വെള്ളം തൊണ്ടയ്ക്കു പിടിക്കും പിന്നെ ശരിക്കും നല്ലപോലെ ആവിപിടിക്കുക ആണിതിൻ്റെ മെയിനായിട്ടുള്ളത്